ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത ചില പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ജാതി ജാതിയിലും മതത്തിലും ആൾക്കാരുടെ ഒത്തൊരുമയാണ് ഏറ്റവും ആകർഷകമായ ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിരത്തോ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള അനീതിയോ അനീതിയോ അക്രമങ്ങളോ ജാതിയുടേയും മതത്തിൻ്റെ പേരില് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ രൂക്ഷമല്ല എന്ന് വേണം പറയാൻ സാമൂഹ്യസ്ഥിതി ആ ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധം അതുപോലെതന്നെ ഉള്ള സഹകരണം ഇതെല്ലാം കേരളത്തിലെ മാത്രം പ്രത്യേകതയാണ് അത്പോലെ ശുദ്ധജലം ശുദ്ധവായു ഒത്തൊരുമ എന്നിവ കേരളത്തിൻ്റെ പ്രത്യേകം പ്രത്യേകതയായി കാണപ്പെടുന്നു അതുപോലെ തന്നെ നിരവധി കലാരൂപങ്ങളും ആചാരങ്ങളും കേരളമനുഷ്ഠിച്ചു വരുന്നു കേരളമെന്ന സംസ്ഥാനമനുഷ്ഠിച്ച് വരുന്നു ഓണം വിഷു എല്ലാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ആഘോഷങ്ങളാണ് സെപ്റ്റംബർ മാസം ഓണം നടത്തിവരുന്നു അതുപോലെതന്നെ വിഷുക്കാലം ഓണക്കാലമെന്ന് പറയുന്നത് ഓരോ കേരളക്കാരുടെയും അഭിമാനമാണ് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പം കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത് തിരുവനന്തപുരം ആണ് അതുപോലെ കേരളത്തില് പതിനാല് ജില്ലകളുണ്ട് കേരളത്തിലെ ജില്ലകളുടെ കാര്യമെടുത്ത് കഴിഞ്ഞാല് ഇടുക്കിയെന്ന സ്ഥലത്താണ് ഞാൻ നിലകൊള്ളുന്നത് അത്പോലെന്നെ ഇടുക്കിയിൽ ഒരുപാട് ജൈവവൈവിധ്യങ്ങളുണ്ട് ഒരുപാട് ശുദ്ധവായു ശുദ്ധജലം അതുപോലെതന്നെ സമാധാനം അന്തരീക്ഷം നല്ലന്തരീക്ഷം പരിസ്ഥിതി ലോല പ്രദേശം എന്നിവയെല്ലാം ഈ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് അത്പോലെതന്നെ കേരളത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് കേരളത്തിലെ ആളുകളൊരുപാട് ഉപയോഗിച്ച് വരുന്ന ഭാഷയാണ് മലയാളം കേരളത്തിലെ കേരളത്തിലൊരുപാട് വൈവിധ്യങ്ങളാർന്ന വിദ്യാലയങ്ങളും ഒരുപാട് ആരാധനാലയങ്ങളും നിലകൊള്ളുന്നു കൂടുതൽ കണ്ടുവരുന്ന ആരാധനാലയങ്ങൾ പള്ളിയും അമ്പലവും മോസ്കും ആണ് ഇവിടുത്തെ അന്തരീക്ഷ ഇവിടുത്തെ ഒരന്തരീക്ഷം ഉള്ളതെന്ന് പറയുന്നത് കേരളത്തിലെ സാഹോദര്യം കേരളത്തിലെ ഒരു സ്നേഹം ഒക്കെയാണ് ഈയൊരു കേരളത്തിൻ്റെ ചില സവിശേഷതകളിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വർഗ്ഗീയതയില്ലായ്മ ഒത്തൊരുമ എന്നത് മറ്റ് സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പം കേരളത്തിലെ ഒരുപാട് നല്ല രീതിയിൽ ഉള്ള സാഹോദര്യവും സ്നേഹവും പരസ്പര ബഹുമാനവും കാണാനായിട്ട് സാധിക്കും അത്പോലെതന്നെ വിദ്യാഭ്യാസത്തിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലൊരു കുട്ടിപോലും വിദ്യാഭ്യാസം ലഭിക്കാതെ ഇരിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന സർക്കാർ കേരളത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് വരുന്നു